ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പ്രധാന ഒരു വ്യവസായം എന്ന് പറയുന്നത് തടി വ്യവസായമാണ് കാരണം കുറേയധികം മില്ലുകൾ തടിമില്ലുകൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ട് കാരണം ഈ വീട് വയ്ക്കുന്നതിനും മറ്റു കെട്ടിടങ്ങൾ പണിയുന്നതിനും എല്ലാം ഒരുപാട് തടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള തടി വ്യവസായങ്ങൾ കൂടുതലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ മരങ്ങൾ മുറിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അതിനെ പട്ടിക പട്ടികകൾ ആക്കി ഈർന്നെടുക്കുകയും അതുവെച്ച് വീടിന് സജ്ജമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ആണ് ഈ വ്യവസായങ്ങൾ കൊണ്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ ഇതിൽ പട്ടികകൾ മാത്രമല്ല ഇതിൽനിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ നമ്മൾക്ക് പാചകത്തിനും മറ്റു വ്യവസ്സായങ്ങൾക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെതന്നെ ഈ വ്യവസായത്തിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ എല്ലാം ഉണ്ടാകുന്നുണ്ട് അതുപോലെ അടുത്ത ഒരു പ്രധാന വ്യവസായം ഇഷ്ടിക വ്യവസായമാണ് ചൂള പാടങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ കാരണം ഈ മണ്ണുകൊണ്ട് ഇഷ്ടികകൾ നിർമ്മിച്ച് അത് ചുട്ടെടുക്കുക അതിനെയാണ് ഈ ചൂളപ്പാടങ്ങൾ എന്നു പറയുന്നത് ചുട്ടെടുത്തിട്ട് അതിന് ഇഷ്ടികൾ വീട് നിർമിക്കാൻ ആയിട്ടാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് വീടുകൾ മാത്രമല്ല കെട്ടിടങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് ഈ ഇഷ്ടികളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറെ തരത്തിലുള്ള ഇഷ്ടിക വ്യവസായ രൂപീകരണങ്ങള് നമ്മളുടെ ഗ്രാമത്തിലുണ്ട്